ഇത് ടു വീലർ കമ്പനി ആണോ അതെ ഞങ്ങൾക്ക് ഞങ്ങൾ കൊറച്ചു ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് രണ്ട് ബൈക്ക് വാടകയ്ക്ക് കിട്ടുമോ എന്ന് അറിയാനായിരുന്നു അത് ആ അത് ഞങ്ങൾ ഈ പണിക്കൻകുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്നായിരുന്നു ഞങ്ങൾക്ക് തിരുവനന്തപുരത്തിന് ഒരു ടൂറ് പോകാനായിരുന്നു അതാണ് ഞങ്ങൾ രണ്ട് വണ്ടി ബൈക്ക് വേണം അപ്പം അതിൻ്റെ റെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു

മ്മ് ഞങ്ങൾക്ക് ഒരു അഞ്ചുദിവസത്തേക്ക് വേണമായിരുന്നു

രണ്ടെണ്ണം വേണം നമ്മൾ നാല് പേരുണ്ട് അപ്പോൾ രണ്ട് രണ്ടെണ്ണം വേണം

അപ്പം അത് അതിൻ്റെ റെന്റ് റെന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ പ്രൈസ്

ആ ആ അത് ഓരോ

ആ അത് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ആ അതിന് കുഴപ്പമില്ല ഞങ്ങളിപ്പം അഞ്ചുദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ആറു ദിവസത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയോ അതെയോ

ആ അത് ഞങ്ങൾ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് കൂട്ടുകാർ എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ കറക്റ്റ് സമയം പറയാം നിങ്ങൾ കൊണ്ട് തരുവാണോ ചെയ്യുന്നത് അതോ ഞങ്ങൾ വരണോ അപ്പോൾ അതിൻ്റെ നേരത്തെ തന്നെ അഡ്വാൻസൊക്കെ തരേണ്ടി വരുവോ മ്മ് ആ ഇത് ഇതിന് ബുക്കും പേപ്പറൊക്കെ ഉള്ള വണ്ടികളായിരുക്കുമല്ലോ നമുക്ക് ഒരു കംപ്ലൈൻറ്റൊന്നും വരരുത്

ആ അപ്പോൾ ഇതിൻ്റെ പെട്രോളൊക്കെ ഞങ്ങൾ തന്നെ അടിച്ചുകൊണ്ട് പോകണോ അതെയോ വണ്ടി അത് എങ്ങനെയാണ്

അ അ